ഇത് മുണ്ടംകുന്ന് ഫർണിച്ചേഴ്സാണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരലമാര വേണമായിരുന്നേ അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ രീതിയിലുള്ള അലമാരകളൊക്കെ അവടെയുണ്ട് ഞങ്ങൾക്ക് പ്രൈസ് കുറവ് ഏതിനായിരിക്കും പ്രൈസ് കുറവ് ഏതിനായിരിക്കും ഇപ്പോൾ തേക്കിനൊക്കെയാണെങ്കിൽ ആ അപ്പോൾ അതിൻ്റെ ഈ സെക്ഷനൊക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ ഞങ്ങൾക്കൊരു വീടിൻ്റെ കേറിത്താമസം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടീട്ടായിരുന്നു അപ്പം ആ അപ്പം അതിന് അനുസരിച്ചുള്ള പ്രൈസിന് കിട്ടുമോ ഡെലിവെറി ചാർജ്ജ് എന്ത് വരെ ആവും ഓ ആണല്ലേ അപ്പം അടുത്ത് വന്ന് എടുക്കുകയാണെങ്കിലോ ഓ നമുക്കിഷ്ടമുള്ള മോഡല് തിരഞ്ഞെടുക്കാമല്ലേ അപ്പോൾ എക്സ്ട്രാ ചാർജ്ജ് കൊടുക്കണ്ടി വരുമോ ഞങ്ങളുടെ വീട് കോട്ടയം ആയിരുന്നേ കോട്ടയം പൊൻകുന്നമെന്നു പറഞ്ഞ സ്ഥലത്തായിരുന്നു

ആ ഓക്കേ ഓക്കേ എങ്കിൽ ഞങ്ങൾ വന്നെടുത്തോളാം ഓക്കേ താങ്ക് യൂ